ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ടും നീന്താൻ ആഗ്രഹം ഉള്ളതേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ കുളങ്ങളിലാണ് കൂടുതലായിട്ടും എനിക്ക് നീന്താനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാരണം നമുക്ക് വേറെ ഇപ്പോൾ ഒഴുകിപ്പോകും അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടാ നമ്മള് ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ നീന്തി കളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഒരു താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഥവാ കുളങ്ങൾ ഒന്നും നമുക്ക് ചിലപ്പോൾ ചില വീടുകളിൽ ഒക്കെ പോയി കഴിഞ്ഞാല് അവിടെ നമുക്ക് ഇപ്പോൾ കുളിക്കാൻ നമ്മളിപ്പോൾ ഒരു എൻറെ ഒരു കസിൻ എടുത്തു പോയി ഞാൻ അവന്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്ന് കുളിക്കാനും നീന്താനും ഒക്കെ ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മക്ക് കുളം കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഇപ്പോൾ ബീച്ചിലാരിക്കും ചിലപ്പം നമ്മള് പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ബീച്ചിലെന്ന് പറയുമ്പോൾ നമുക്ക് നീന്താന് അങ്ങനത്തെ സൗകര്യങ്ങള് കാര്യങ്ങള് ഒക്കെ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാല് തിരമാല ഇങ്ങനെ ഒക്കെ അടിച്ചു കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും നീന്താൻ ഒക്കെ പിന്നെ നമുക്ക് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമുള്ള ബീച്ചില്ന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അപ്പം ഇല്ലെങ്കിൽ എന്തെങ്കിലും പുഴയോ അങ്ങനത്തെ എന്തെങ്കിലും ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മള് കൂടുതലായിട്ടും അങ്ങനെയൊക്കെയാണ് നോക്കാറ് പുഴ തന്നെയാണെങ്കില് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഓവർ ആഴമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മള് നീന്താറുണ്ട് അപ്പം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ തന്നെ എൻറെ വീടിൻറെ അടുത്ത് തന്നെ നദിയും കാര്യങ്ങളൊക്കെയുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെള്ളമോ വെള്ള എന്താ പറയുക ഇപ്പം നല്ല തെളിനിരായിട്ടുള്ള ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ കൂടുതൽ നീന്താറുള്ളത്